ഹലോ എൻ്റെ പേര് കാവ്യ ഞാൻ കണ്ണൂരിൽനിന്ന് ആണേ വിളിക്കുന്നത് നിങ്ങൾ ആഗ്രോ ടീ ഇൻഡസ്ട്രിൻ്റെ ഏജെൻ്റ് ആണോ ഓക്കെ ഞാൻ പേപ്പറിൽ നമ്പർ കണ്ടിട്ട് വിളിക്കുന്നതാണേ ഓക്കെ ഞാൻ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ണൂർ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അവിടത്തേക്ക് നിങ്ങൾ ടീ വേണമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ കണ്ണൂർ ബാക്കിയുള്ള ടീ ഷോപ്പുകളിലും ഹോട്ടൽസിലും ഒക്കെ സപ്ലെെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് തരാൻ പറ്റുമോ ഓക്കേ

എൻ്റെ ഷോപ്പ് പ്രോപ്പർ കണ്ണൂർ തന്നെ സിറ്റിയിൽ തന്നെ ആണ് വരുന്നത് ആ ഓക്കേ ഓക്കേ ഓക്കേ എങ്ങനെയാണ് ഡെലിവറി ഒക്കെ വരുന്നത് നിങ്ങളുടെ

ആണോ ആ അപ്പോൾ ഡെലിവറി ചാർജ്ജ് ഒക്കെ വരുന്നുണ്ടോ നിങ്ങളുടെ ഓക്കെ പേയ്മെൻ്റ് ഒരുമിച്ച് അടക്കണമെന്ന് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രോഡക്ട് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ തന്നാൽ മതിയോ എങ്ങനെയാണ് വരുന്നത് ഓക്കേ എൻ ഓക്കേ എനിക്ക് ഫസ്റ്റ് ഗ്രേഡ് എൻ്റെ സൂപ്പർമാർക്കറ്റിൽ വയ്ക്കാനും ആവശ്യം ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് സപ്ലെെ ചെയ്യാൻ തേർഡ് ഗ്രേഡ് ആണല്ലേ നല്ലത് ഓക്കെ ഇതിൻ്റെ ആ ഓക്കെ നിങ്ങളുടെ അടുത്ത് ഈ പൊടി മാത്രം ആണോ അല്ലെങ്കിലൊരു ഇല ചായ ഇല്ലേ അത് ഉണ്ടോ

ഓക്കെ ഈ ഫ്ലേവർ ഒക്കെ ചേർത്ത് ചായപൊടി ഉണ്ടാവുമോ

ഓക്കെ നമ്മൾ എങ്ങനെയാണ് ഓർഡർ തരുന്നത് എങ്ങനെയാണ് വിളിച്ചിട്ട് പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ നമ്മൾ വന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ എങ്ങനെയാണ് വേണ്ടത്

ഓക്കേ ഓക്കേ അപ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണർ ആയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കാം ഓക്കെ താങ്ക്യൂ ആ